നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പിന്നെ സ്കൂളുകളിൽ ലൈബ്രറി റിസർച്ച് സെൻ്റെഴ്സ് ഒക്കെയുണ്ട് ഒരുപാട് മത്സരങ്ങളും സ്കൂളുകളിൽ നടത്തുന്നുണ്ട് എല്ലാ വർഷവും സ്കൂൾ കലോത്സവം കായിക മത്സരങ്ങൾ ക്വിസ് മത്സരങ്ങൾ എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ട് കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാനും അവയെ പ്രോത്സാഹിപ്പിക്കുവാനും അധ്യാപകർ ഒരുപാട് പ്രചോദനം അവർക്ക് നൽകാറുണ്ട് കലാകായിക മത്സരങ്ങളിലൂടെ അവരുടെ മികവ് പുലർത്താൻ സഹായിക്കുന്നു പിന്നെ ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ട്രോഫി കാഷ് അവാർഡ് നോട്ബുക്ക് പെൻസിൽ ഇങ്ങനെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ അവർക്ക് നൽകുവാനും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും സഹായിക്കുന്നു ഞാൻ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടും അവയ്ക്കൊക്കെ സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ എനിക്കെൻ്റെ കഴിവ് തെളിയിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്